ഞാന് കഴിഞ്ഞ ദിവസം ഒരു പേന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാന് സാധാരണയായിട്ടുപയോഗിക്കുന്നത് ബോള് പെന്നാണ് പക്ഷെ ഇപ്പ്രാവശ്യം ഞാന് വാങ്ങിച്ചത് ഒരു ഹീറോ പെന്നാണ് എനിക്കീ ബോള് പെന്നുകൊണ്ട് എഴുതുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷന് വരുന്നില്ല ഹാന്ഡ് റൈറ്റിംഗ് ആണെങ്കിലും ഒരു സ്മൂത്ത്നെസ്സ് കിട്ടുന്നില്ല ഒരു രഫ്ഫ് ആയിട്ടുള്ള ഒരു പ്രതീതിയാണ് അത്കൊണ്ട് എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്നത് പക്ഷെ ഞാന് കഴിഞ്ഞ എന്റെ ചെറുപ്പ കാലത്ത് സ്കൂളില് പഠിക്കുന്ന സമയത്താണ് ഞാന് ലാസ്റ്റ് ഞാന് ഈ ഹീറോ പേനയും കൊണ്ട് എഴുതിയേക്കുന്നത് അത് പറയാന് പറ്റത്തില്ല ഞാന് ഈ പ്രാവശ്യം വാങ്ങിച്ച ഹീറോ പേന എന്നാ സ്മൂത്താന്നറിയാവോ ഭയങ്കര സ്മൂത്ത് ആണ് അത് മാത്രം അല്ല അതിന് മഷി ആണെങ്കില് ഒന്നും പരക്കുന്നുമില്ല ചില ബോ ഹീറോ പേന ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കാണാം മഷി ഇങ്ങനെ പരന്നു പരന്നു പോകുന്നത് പക്ഷെ ഇതിന് മഷിയും പരക്കുന്നില്ല ഹാന്ഡ് റൈറ്റിംഗ്വൈസ് നോക്കുവാണെങ്കില് നല്ല സ്മൂത്ത് ആണ് അത് മാത്രവുമല്ല എന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ അത് താഴെ പോയി പക്ഷെ അതിന്റെ താഴെ പോയിട്ടും അതിന്റെ നിബ്ബിന് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല ഞാന് വാങ്ങിച്ചത് ഒരു ബ്രാന്ഡടായിട്ടുള്ള ഒരു പേനയാണ് വാങ്ങിച്ചത് ഇച്ചിരി കോസ്റ്റ് ആയെങ്കിലും എനിക്കത് വര്ത്ത് ആയിട്ട് എനിക്ക് തോന്നി കാരണം വെച്ചിട്ടിണ്ടെങ്കില് എനിക്കൊരു സാറ്റിസ്ഫാക്ഷന് ഉണ്ട് അതുകൊണ്ട് എഴുതുമ്പോൾ ഒരു മഷി പരക്കലില്ല ഹാന്ഡ് റൈറ്റിംഗ് ആണെങ്കിലും നമുക്ക് ബുക്ക് നോക്കുമ്പോൾ ഒരു ഒരു ആ സന്തോഷം നമുക്ക് ആ പേനയും കൊണ്ട് എഴുതുമ്പം കിട്ടുന്നുണ്ട് എന്നോട് ആള്ക്കാര് ചോദിച്ചു എടീ നിന്റെ ഹാന്ഡ് റൈറ്റിംഗ് എന്താ ഇങ്ങനെ സ്മൂത്ത് ഇത് നല്ല ഭംഗിയുണ്ടല്ലൊ കാണാന് വേണ്ടിയിട്ടെന്ന് ആ പറഞ്ഞ ആള്ക്കാരോടെല്ലാം ഞാന് ഈ ബ്രാന്ഡിൻ്റെ പേനയാണ് റെഫര് ചെയ്ത് കൊടുത്തേക്കുന്നത് അത് ഛെ ചെയ്ത് കൊടുക്കാന് കാരണം വെച്ചിട്ടുണ്ടെങ്കില് അത്രയും സോഫ്റ്റ് അത്രയും സ്മൂത്ത് ആയിട്ട് എനിക്ക് എഴുതാന് പറ്റുന്നുണ്ട് ഞാന് ഇനി ഇതിന്റെ ഒരു രണ്ടെണ്ണം കൂടി വാങ്ങിക്കുന്നുണ്ട് കാരണം ഒരു എൻ്റെ കയ്യില് ഇപ്പോൾ ഉള്ളത് നീല മഷീന്റെയാണ് വാങ്ങിച്ച് വച്ചേക്കുന്നത് എനിക്ക് ഒരു ബ്ലാക്ക് ഇങ്കും കൂടെ വാങ്ങിക്കണം ഈ സെയിം ബ്രാന്ഡിൻ്റെ അതെ പേന തന്നെ